ഞാൻ ചെറുപ്പം മുതലേ പത്രം വായിക്കുന്ന ആളാണ് രണ്ട് പത്രം എങ്കിലും ഒരു ദിവസം വായിക്കാറുണ്ട് കൂടുതലായിട്ടും വായിക്കുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയവും പൊതു കാര്യങ്ങളും ആണ് കൂടാതെ ടീ വി വാർത്തകൾ ദിവസവും രാവിലെ കാണുകയും കേൾക്കാറുണ്ട് എല്ലാ ദിവസവും അതിരാവിലെ റേഡിയോ വാർത്ത കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു റേഡിയോ വാർത്ത കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള വാർത്തകൾ മാത്രമേ അതിരാവിലെ റേഡിയോയിൽ വരുള്ളൂ പത്ത് മിനിറ്റിനുള്ളിൽ പ്രധാന വാർത്തകളുടെ രത്നച്ചുരുക്കമെല്ലാം അതിനകത്ത് കിട്ടിയിരിക്കും അതുകൊണ്ട് ആ ഒറ്റ കാരണത്താലാണ് കൂടുതലായിട്ട് റേഡിയോ വാർത്ത കേൾക്കുന്നത് അത് കഴിഞ്ഞാൽ ടി വി വാർത്തകൾ കാണും അത് ഒരു ചാനല് പ്രത്യേകമായിട്ട് എനിക്ക് ഇല്ല അതിൻ്റെ ശരിയായ തെറ്റും തെറ്റും ശരിയും മനസ്സിലാക്കണമെങ്കിൽ പല വാർത്തകൾ കാണണം അത് കാരണം കൊണ്ട് എല്ലാ ചാനലുകളും മാറി മാറി കാണാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ സാധാരണ ഞാൻ അധികമായിട്ട് വായിക്കുന്ന പേപ്പറ് മാതൃഭൂമിയും ദേശാഭിമാനിയും ആണ് ഈര് രണ്ട് രണ്ട് പേപ്പറുകളും ഒരു ദിവസം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുപോലെത്തന്നെ ശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളും കൂടുതലായിട്ടറിയാൻ എനിക്കാഗ്രഹമുണ്ട് എല്ലാ എല്ലാ ദിവസവും പത്രം വായിക്കുകയും ടി വി കാണുകയും അതനുസരിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിരാവിലെ ഓരോ ദിവസവും പത്രം വായിക്കാറുണ്ട് പൊതു ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകി സംസാരിക്കുന്നതിനോടും പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നതിനോടുമാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഞാനൊരു തീവ്ര രാഷ്ട്രീയ കാരനായി

അക്രമ രാഷ്ട്രിയത്തിനോട് ഒരിക്കലും ഞാൻ യോജിപ്പില്ല എൻ്റെ സഹപ്രവർത്തകരോടും സമീപവാസികളോടും ഒരേ രൂപത്തിൽ ഒന്നിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നവനാണ് രാഷ്ട്രീയം ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കിട്ടുന്ന കാര്യങ്ങളാണ് അതനുസരിച്ച് എല്ലാവരോടും ഒന്നിച്ച് പോകാനും ഒന്നിച്ച് നിൽക്കാനും ഓരോരുത്തരുടെ കാര്യങ്ങൾ പൊതു കാര്യങ്ങൾ ഇടപടാനും അവിടെ മതമോ രാഷ്ട്രീയമോ നിറമോ വ്യത്യാസോ വർണമോ ഒന്നും ഇല്ലാതെ ഓരോരുത്തരെ ഇടപടാനാണ് എനിക്കിഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഇരിക്കുന്നത്